ഞങ്ങളുടെ വില്ലേജിൽ ഒരാളെ ഇങ്ങനെ പട്ടി കടിച്ചിരുന്നു അപ്പം ഞങ്ങൾ ആദ്യം ചെയ്തിരുന്നത് അവൻ്റെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴ്ത്തേക്കും ആ ഒരു പതിനാല് കുത്തിവെപ്പോളം എടുക്കു എടുക്കുകയും ചെയ്തിരുന്നു പേപ്പട്ടി അല്ലാത്തത് കൊണ്ട് അവന് വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല പെട്ടെന്ന് കടിച്ച് അതുപോലെ തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തത് കൊണ്ട് യാതൊരു വിധം കൊണ്ട് കുഴപ്പങ്ങളോ ഒന്നും ഇതുവരെയും വന്നിട്ടില്ല അവൻ പട്ടി കടിച്ച കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് കുറച്ച് ഗുരുതരമായി മാറിയേനെ അപ്പം ഞങ്ങൾ ഇപ്പം അവൻ രാത്രിയിൽ സാധനം മേടിക്കാൻ കടയിലേക്ക് പോയതായിരുന്നു അപ്പോൾ അവിടുത്തെ ആ കടയിലെ ചേട്ടൻ്റെ പട്ടി കെട്ട് പൊട്ടിച്ച് വരുകയും പെട്ടെന്ന് ചാടി മേത്തേക്ക് വീഴുകയും അങ്ങനെ ഒരു കടി കടിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ അവിടെ നിന്ന ആൾക്കാരെല്ലാം ഓടിക്കൂടി പട്ടിയെ പിടിച്ചു മാറ്റുകയും ചെയ്തു അവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു അന്ന് അതുകൊണ്ടു അവന് വലിയ അപകടങ്ങൾ ഒന്നും സംഭവിച്ചില്ല എന്നാൽ പോലും പട്ടികടി ഏൽക്കുക അതിലേക്ക് കൂടുതലും ശ്രദ്ധി ശ്രദ്ധ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം കുഞ്ഞ് പിള്ളേർ കുഞ്ഞ് പിള്ളേരൊക്കെ ആണെങ്കിൽ പോലും അവർ പെട്ടെന്ന് എങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല പിന്നെ നമ്മളെപ്പോഴും സേഫ് ആയിട്ടിരിക്കുക പട്ടിയുടെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോഴ്ത്തേക്ക് സൂക്ഷിക്കുക പട്ടിയുടെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോഴ്ത്തേക്ക് നമ്മൾ സൂക്ഷിക്കുക കടിക്കുന്ന പട്ടി ആണെങ്കിലും പാവം പട്ടി ആണെങ്കിലും നമ്മൾ ഒരിച്ചിരി ജാഗരൂകരായിരിക്കുക കാരണം എപ്പോഴാണ് എങ്ങനാന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല കാരണം പട്ടി ആയതുകൊണ്ട് നമുക്ക് ഇപ്പം സ്വഭാവത്തെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ലാലോ അപ്പം നമ്മൾ കുറെക്കൂടെ ശ്രദ്ധയോടെയും കരുതലോടെയും ഇരിക്കുക